ഹലോ ഇതേ ഹലോ ആ ഇത് ആര്യ ടെക്സ്റ്റൈൽസല്ലേ ആ ഞാ എൻ്റെ പേര് കാവ്യ ആ ഞാൻ ഒരാഴ്ചയ്ക്ക് മുമ്പ് മാഡത്തിൻ്റെ ഷോപ്പിൽ നിന്ന് ഒരു സാരി എടുത്തിരുന്നു പ്രൈസ് ഒരു എണ്ണൂറ്റി സംതിംഗ് രൂപ ആണ് ഞാൻ ഓർക്കുന്നില്ല

ആ ഒരു എണ്ണൂറ്റി സംതിംഗ് രൂപയുടെ ഒരു സാരി ആയിരുന്നു എനിക്ക് അത് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു കേട്ടോ അത് എനിക്ക് അത് പോലത്തെ ഒരു പീസും കൂടി കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചിരുന്നു മാഡത്തിനെ പക്ഷെ കോള് കിട്ടിയില്ല ആ റെഡ് കളറ് സാരി അത് തന്നെ അതു പോലത്തെ ഒരു പീസും കൂടി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആയിരുന്നു ആ അതിൻ്റെ ആ ഒരു ഇത് വേണ്ട അതല്ലെങ്കിൽ അത് വേറെ ഉണ്ടോ ഈ എഴുന്നൂറ്റി തൊന്നൂറ്റൊമ്പതോ അങ്ങനെ എന്തെങ്കിലും റേറ്റിലുള്ള നല്ല വേറെ ക്വാളിറ്റിയുള്ള സാരീസ് ഉണ്ടോ അവിടെ സാരീസ് മാത്രം അല്ല വേറെ എന്തെങ്കിലും ചുരിദാറുകളോ ടോപ്പ്സോ അങ്ങനെ എന്തെങ്കിലും കോൺടാക്ട് ചെയ്യാൻ ഞാൻ നമ്പറ് തന്നിരുന്നു ഞാൻ മാഡത്തിന് ആ മാഡം ഈ ടോപ്പിനൊക്കെ എത്ര രൂപ റേറ്റ് സ്റ്റാർട്ടിംഗ് ആണ് ഞാൻ അന്ന് വന്നപ്പം എനിക്ക് ഒരു മാര്യേജിന് വേണ്ടി ആയിരുന്നു ഞാൻ എന്താണ് സാരി വന്ന് എടുത്തത് പക്ഷേ എനിക്കാണെങ്കിൽ ഇപ്പോൾ എന്താണ് ടോപ്പ്സ് ജോലി ഒക്കെ ആയത് ടോപ്പ് ഒക്കെ ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് എത്ര രൂപയാണ് ഒരു ടോപ്പ്സിനൊക്കെ വില ആ ഹാ ആ വേറെ പ്രിൻ്റഡായിട്ടുള്ള സാരീസോ ഇപ്പോഴത്തെ മോഡലിന് അനുസരിച്ച് മറ്റേ നെക്ക് ഇൻ പോലത്തെ സാരി അങ്ങനെ ഒക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ഫോട്ടോസും അതിനുള്ള റേറ്റുകളൊക്കെ ഒന്ന് പറയാമോ ആ ഇപ്പോൾ ഒന്ന് പറയുമോ ആ ഓക്കെ വെയ്റ്റ് ചെയ്യാം മാഡം മാഡം നോക്കിയിട്ട് പറഞ്ഞാൽ മതി ആ ഹലോ പറഞ്ഞോ

ആ ഓക്കെ അന്നത്തെ സാരി അന്നത്തെ സാരി പോലത്തെ ഒരെണ്ണം വേണമായിരുന്നു അപ്പം ഇനി ഇപ്പം അതിനെ പറ്റി സാരി ഇപ്പോൾ ഇനി ഈ ക്വാളിറ്റി സാധനം വന്നാലെ ഉള്ളൂ അല്ലേ ആ ഓക്കെ ആ ഓക്കെ താങ്ക് യു അപ്പം നെക്സ്റ്റ് ഡേ ഞാൻ ഇനി അടുത്തൊരു ഒരു ടു ഓർ ത്രീ വീക്ക്സ് കഴിയുമ്പോൾ ഞാൻ മാഡത്തിനെ കോൺടാക്ട് ചെയ്യാം ഓക്കെ താങ്ക് യു താങ്ക് യു